ഇപ്പം പാചകത്തിൽ ഞാൻ പുതുതായിട്ട് ചേർക്കേണ്ട ഒരു ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ചക്ക അപ്പം ഉണ്ടാക്കില്ലേ ഇപ്പം ഈ ചക്ക അപ്പം പണ്ടൊക്കെ നമ്മളെ വീട്ടിലും പൊതുവേ ഉണ്ടാക്കൽ നമ്മൾ വാഴൻ്റെ ഇലയിലൊക്കെ അത് വാട്ടിയിട്ടൊക്കെ ആണ് ഉണ്ടാക്കിയത് ഇപ്പോൾ വാട്ടിയിട്ട് ഉണ്ടാക്കലുണ്ട് പിന്നെ നോർമൽ അത് പറിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കലുണ്ട് പക്ഷെ ഒരു ദിവസം വഴണയില ഈ കറുകപട്ടൻ്റെ പോലെ ഒരു ഇലയാണ് വഴണിയില എന്നു പറയുന്ന അതിൽ ഉണ്ടാക്കിയപ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് നമുക്ക് നോർമലി നമ്മൾ അത് കണ്ട് കഴിഞ്ഞാൽ നമുക്ക് അത് കാറുകപട്ടെൻ്റെ ഇലയാണെന്ന് തോന്നിപ്പോവും പക്ഷെ അത് കാറുകപട്ടെൻ്റെ ഇല അല്ല അത് വഴണിയില ആണ് അതിന് നമ്മൾ കാറുകപട്ടെൻ്റെ എല്ലാ ഇതും തോന്നും സ്മെലും കാര്യങ്ങളും എല്ലാം പക്ഷെ അതിനൊരു കൊഴുപ്പ് വേറെ ഉണ്ട് അത് നമുക്ക് അത് അത് മാത്രമായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന് വേറെ ഒരു കൊഴുപ്പുണ്ട് അതിൽ ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് തോന്നി അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഗ്യാസും അതിൻ്റെ ഒരു ടേസ്റ്റും ഞാൻ അത് ചെറിയൊരു കുമ്പിളാക്കി കുത്തിയിട്ട് അതിൽ ഇങ്ങനെ ചക്ക പുഴുങ്ങിയതൊക്കെ അതിൽ വച്ച് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ അതിന് ഭയങ്കരമായിട്ട് ടേസ്റ്റ് തോന്നി അതിൽ വേണമെങ്കിൽ നമുക്ക് ജീരകവും പിന്നെ നമ്മളെ ഏലക്കായയും കാര്യങ്ങളുമൊക്കെ പൊടിച്ചിടുമ്പോൾ നമ്മൾ ഈ വഴണ ഇലൻ്റെ അതിൻ്റെ ഫ്ലേവറും കൂടെ വരുമ്പഴേക്ക് ഒരു ഭയങ്കരം ആയിട്ട് നമുക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നും പൊതുവെ എല്ലാവരും അത് യൂസ് ചെയ്യൽ ഉണ്ടാവില്ല കാരണം ഇതിൻ്റെ ഈ ഇല നമുക്ക് കണ്ടുകഴിഞ്ഞ നമുക്കത് കറുകപട്ടെൻ്റെ ഇലയാന്ന് ഫീലിയുന്നൊണ്ട് നമ്മളത് യൂസ് ചെയ്യൂല പക്ഷെ അതില് വഴണയിലാന്ന് പറഞ്ഞിട്ട് വേറൊരു ഇലേം കൂടെയുണ്ട് അത് അത് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇപ്പം വാഴൻ്റെ എലേലും പിന്നെ എന്താ വേറെ കൊറേ ഇലകളിലും പലരും പലതായിട്ട് യൂസ് ചെയ്യാണിണ്ട് ചക്ക അപ്പം ഇണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മള് വീട്ടില് നമ്മള് വായ വയണയിലെനെ കൊണ്ട് ഇണ്ടാക്കിയപ്പോ അത് തോന്നിയത് നല്ല ടേസ്റ്റ് ആയിട്ട് അപ്പൊ എ ഇനിപ്പം ഞാൻ വേറൊരാളോട് പറയാണെന്നുണ്ടെങ്കില് വാഴ വാഴെൻ്റെ ഇലേക്കാട്ടിലും ഒന്നുകൂടെ പറയാ ഈ വഴണ ഇലയാണ് കാരണം അത് അത് പറയാൻ പറ്റുന്നതിലും അപ്പുറാണ് അതിൻ്റെ ടേസ്റ്റ് വന്നിട്ടുള്ളത്